ആ ഹാലോ റൊഹിത്തല്ലെ ആ ഞാൻ കുറച്ച് നേരം മുമ്പ് നിങ്ങളുടെ ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു ആ അതെതെ ആ എനിക്ക് അർജൻടായ്ട്ടവടെ എത്തണായിരുന്ന് ഏകദേശമൊരു ടൈം പറയാമോ അവിടെത്തന്നെ ഓ പതിനെഞ്ച് മിൻറ്റ് എടുക്കുമോ ബ്ലോക്കാണൊ അപ്പം നിങ്ങൾക്ക് വരാനായിട്ട് ഏതെങ്കിലും ഈസി ആയിട്ടുള്ള റൂട്ട് അറിയാമെങ്കിൽ അങ്ങനെ വരാന്നോക്കു ആണോ ആ ഓക്കെ ഓക്കെ അ അ അ ആ അപ്പോൾ ഏകദേശം പതിനഞ്ച് മിൻറ്റ് എടുക്കുമല്ലേ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നേരത്തെ ഒന്ന് വരാന്നോക്കു ആ എന്നിട്ടിവിടെ എത്തിക്കഴിയുമ്പം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യു ഇപ്പം നിങ്ങൾ നിലവിലെവിടെ നിക്കുന്നത് ഓ അവിടാണോ ആ ഓക്കെ ഓക്കെ എന്തായാലും ഇവിടെ എത്തിക്കഴിയുമ്പം ഒന്ന് കോണ്ടാക്ട് ചെയ്യു ഓക്കെ